ഞാൻ സാരിയായിരുന്നു വാങ്ങിയത് നല്ല ഭംഗിയായിരുന്നു എനിക്ക് കിട്ടിയ സാരി ഞാൻ പോലും വിചാരിക്കാത്ത അത്ര നല്ല കളറും ഞാൻ എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നൂ അത് നല്ല ഭംഗിയായിരുന്നു നല്ല രസമായിട്ട് നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉടുത്തിട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഒരുപാട് പേര് എനിക്ക് ഉടുക്കാൻ തരുമോ അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിച്ചു പിന്നെ ചേച്ചിമാരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് വേണം ഇത് ഉടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ചോദിച്ചു ഇടാൻ നല്ല രസമായിരുന്നു ഉടുത്തിട്ട് നല്ല കോട്ടൻ്റെ നല്ല ക്ലോത്തായിരുന്നു ചൂട് സമയത്തൊക്കെ ഇപ്പോഴത്തെ ഒക്കെ ചൂടിൽ നമുക്ക് ഉടുക്കാൻ പറ്റിയ നല്ല ഇതേനു നമുക്ക് ഒതുങ്ങി ഉടുത്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് നിൽക്കും നല്ല രസമായിരുന്നു കാണാനും നല്ല ഭംഗി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാരിയായിരുന്നു